അപ്പോൾ ഞാൻ കളിച്ചിട്ടുള്ള ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കളിച്ചിട്ട് ഇപ്പോ നമുക്ക് ഓരോ ഒരു കളികള് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പല രീതിയിലുള്ള കളികള് കാര്യങ്ങൾ ഒക്കെയുണ്ട് നമുക്ക് ഇപ്പോ ഫുട്ബോൾ ഉണ്ട് ക്രിക്കറ്റ് ഉണ്ട് വോളിബോൾ ഉണ്ട് അങ്ങനത്തെ പലരീതിയിലുള്ള കളികൾ കാര്യങ്ങളൊക്കെ ഇപ്പോ നമുക്ക് കളിക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോ നിരാശാജനകമായിട്ടുള്ള കളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനീ അടുത്ത് ഒരു ഫുട്ബോൾ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഒരു ടൂർണമെൻറ് അപ്പോ നമ്മൾ അതിനകത്ത് വിജയിച്ചു നിന്ന ഒരു ടൈം ആയിരുന്നു അതായത് ഇപ്പോ രണ്ടേ സീറോക്ക് നമ്മൾ വിജയിച്ചു നിന്ന ഒരു ടൈം ആയിരുന്നു അവസാന ഒരു നിമിഷത്തില് നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ കളിച്ചു വന്നുകൊണ്ടിരുന്നേ പെട്ടെന്ന് ഒരു നിമിഷങ്ങളിൽ എല്ലാം അതായത് ഒരു സെക്കന്റില് എല്ലാം തകർന്നു വീണ പോലെ ഒരു ഗോളടിക്കുക അതുകഴിഞ്ഞിട്ട് തുടരെത്തുടരെ രണ്ടാമത്തെ ഗോളും അടിക്കുക അങ്ങനെ സമനില ആയിപ്പോയി കാരണം ജയിച്ചു വന്ന ഒരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കൈവിട്ടുപോയ പോലെ ഒരു കൈവിട്ടുപോയി അപ്പൊ അത് എനിക്ക് നല്ല രീതിയില് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഒരാളുടെ ഒരു പിഴവ് കൊണ്ടുമാത്രം നമുക്ക് ജയിക്കാൻ പറ്റാണ്ടായിപ്പോയല്ലോ എന്നൊരു ഒരു പ്രശ്നം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അപ്പോ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും നമ്മള് സമനിലയായി പോയി പിന്നെ അത് രണ്ടാമത് നമ്മള് കളിച്ചിട്ട് നമ്മളത് അതായത് രണ്ടാമത്തെ അടുത്ത വേറെ ആളുടെ കൂടെ കളിച്ചിട്ട് നമ്മളത് ജയിക്കുകയും ചെയ്തായിരുന്നു